പാചകം ഇപ്പോൾ ഒരു തൊഴിലായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് പാചക സ്കൂളുകളിലൊക്കെ പോയിട്ട് പരിശീലനമോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പാചകക്കാരൊക്കെ ആവണമെങ്കിൽ ആവാം വേണമെങ്കിൽ പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൂടെ പഠിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പാചകവും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും സ്കൂളിലൊന്നും പോയിട്ടും ഈ ഇങ്ങനത്തെ പാചകവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ പഠിച്ചുകൊള്ളണമെന്നില്ല കാരണം അങ്ങനത്തെ സ്കൂളുകളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള നാട്ടിലൊന്നും അങ്ങനെയില്ല അപ്പോൾ പുറമേയൊക്കെ പോയിട്ട് ചിലപ്പോൾ പഠിക്കേണ്ടി വരും അപ്പോൾ നമ്മള് ഇതൊക്കെയൊണ് കണ്ടു പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഓരോ പാചകങ്ങളൊക്കെ കണ്ട് പഠിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കൈപുണ്യവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് നല്ല രീതിയില് നമുക്ക് പാചകം പഠിച്ചെടുക്കാനും പറ്റും നമക്ക് അതിനനുസരിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് അമ്മേൻ്റെയടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ അമ്മ അതിനനുസരിച്ചിട്ടുള്ള അതായത് എന്തൊക്കയാ ചേർക്കണ്ടത് എന്തൊക്കെ ചേരുവകള് ചേർക്കണമെന്നൊക്കെ അമ്മ തന്നെ പഠിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും പഠിച്ചാൽ മതി